ഹലോ ഹലോ ആരായിരുന്നു ആ അതേലോ അതേലോ ആ ഹ് പറഞ്ഞോളു ആ ഹ് ആ ആ അതേലോ കുഴപ്പമില്ല മൂന്നാം തീയതി അല്ലേ എത്രാം തീയതി ആണ് ആ അതെ ആ അതെ രണ്ടാണ് ആ ഹ് ആഹ് ഓക്കെ രണ്ടാം തീയതി അപ്പോൾ വൈകുന്നേരം പരിപാടിയുണ്ട് പിന്നെ മൂന്നാം തീയതി എന്നാ അന്നാണോ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം പറഞ്ഞത് ആ ആ ആഹ് ഓക്കേ ഓക്കേ ആഹ് എല്ലാംകുടെ ഒന്നുംകൂടി ഒരു പത്ത് ഇരുപത്തിരണ്ടുരൂപയ്ക് തീർക്കാം ഇരുപത്തിരണ്ടായിരം രൂപ ആ അത് ഒരാഴ്ചക്കുള്ളിൽ തരാം ഓക്കേ ആഹ് അതാണ് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് വേണേൽ തരാം ആ തരാം തരാം തരാം ആ തരാം തരാം തരാം തരാം

ആ തരാം തരാം തരാം ആഹ് പിന്നെ വേറെ

ആ ഡെക്കറേറ്റ് ചെയ്തിടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അതു നമുക്ക് നന്നായിട്ട് ഇരിക്കും

ആ ഇരുപത്തിരണ്ടായിരം രൂപയുംകൂടി കൂട്ടേണ്ടി വരും ഏഹ് രണ്ടായിരം ആണ് പറഞ്ഞത് രണ്ടായിരം ആ ആ ആഹ് ആ അത് കൊണ്ടു വരും എല്ലാംകൊണ്ടുവരും ആ അത് വരാം വരാം അത് ഒരു കുഴപ്പവും ഇല്ല ആ അല്ല അതൊന്നും വേണ്ട സെപ്പറേറ്റ് ഒന്നും വേണ്ട അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടതാണ് അത് ചെയ്തോളാം ആ കുഴപ്പമില്ല അത് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യാം അത് കുഴപ്പമില്ല വേറെ അന്നത്തെ പിന്നെ വേറെ പരിപാടികളുണ്ടെങ്കിൽ പിടിക്കുകയൊന്നും ഇല്ല മ്മ് ആ ഓക്കേ ഓക്കേ ആഹ് വിളിച്ചോളാം വിളിച്ചോളാം ഓക്കേ ഓക്കേ ആ വിളിച്ചോളാം വിളിച്ചോളാം മാറ്റം വല്ലതും ഉണ്ടേൽ പറയണം നേരത്തെ അറിയിക്കണം കേട്ടോ ആ ഓക്കേ ഓക്കേ